ആ പാസഞ്ചർ ബസ്സ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് കണ്ണൂർ വരെ ഒന്ന് യാത്ര ചെയ്തു പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റിലാണ് യാത്ര ചെയ്തത് പക്ഷെ വലിയ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒത്തിരി അനുഭവപ്പെട്ടു ഒന്നാമത്ത കാര്യം വളരെ ബാക്കിലേക്ക് ചാരി കിടക്കാവുന്ന പുഷ് ബാക്ക് സീറ്റുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് പ്രതേകിച്ചു കെഎസ്അർടിസിയുടെ ബസിൽ നേരെ നമ്മൾ ഇരിക്കണം പിന്നെ ഒരു നല്ല ഗുണമുള്ളത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ നന്നായിട്ട് കാറ്റ് കയറും നമ്മടെ ഏസി പല ബസ്സുകളിലുമില്ല ഏസി സൗകര്യം ഇല്ല എങ്കിൽ പോലും നന്നായിട്ട് കാറ്റ് കയറും പക്ഷെ കാറ്റ് കയറും എന്ന് പറയുമ്പോൾ പോലും അത് വെയിലടിക്കുന്നതിന് എതിർവശത്തിരുന്നാൽ മാത്രമേ നമുക്ക് യാത്ര സുഖകരമാകത്തുള്ളൂ എന്നുള്ള മാത്രം ഒരു ദോഷമുണ്ട് പിന്നെ കുലുക്കം ചാട്ടം ഇതൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ കൂടുതലാണ് ചില സമയങ്ങളിൽ അത് വഴിയിൽ കിടക്കും എങ്കിലും കെ എസ് ആർ ടി സി ബസ്സ് ൻ്റെ യാത്ര ഈ പുഷ് ബാക്ക് സൗകര്യം ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ യാത്ര അല്പം കൂടെ കംഫർട്ടബിൾ ആണ്